ഇന്നത്തെ കാലത്ത് എല്ലാ യുവാക്കളും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തരം ഡാ നൃത്തം എന്ന് പറയുന്നത് വെസ്റ്റേൺ ടൈപ്പ് ഡാൻസസാണ് പക്ഷേ അത്രേം ആഗ്രഹോം കഴിവും ഉള്ള കുട്ടികളാണ് ചെറുപ്പം തൊട്ടെ ക്ലാസിക്കൽ ഡാൻസസ് പഠിച്ചു പോകുന്നത് പക്ഷേ ഇന്ന് ക കണ്ടുവരുന്ന കണ്ടുവരുന്നത് എല്ലാവരും കൂടുതൽ വെസ്റ്റേൺ ടൈപ്പ് ഡാൻസ് പഠിക്കാനാണ് എല്ലാവരും ആഗ്രഹം കാണിക്കുന്നത് പല സോഷ്യൽ മീഡിയാസിലൂടെയും എല്ലാവരും ഓരോ ട്യൂട്ടോറിയൽസും എല്ലാം ഇടുന്നത് എന്താ പറയാ വെസ്റ്റേൺ ഡാൻസസിന് വേണ്ടിയിട്ടാണ് വെസ്റ്റേൺ ഡാൻസസിന് കിട്ടുന്ന റീച്ചും ഒരു ഹൈപ്പും പലപ്പോഴും ക്ലാസിക്കൽ ഡാൻസസിന് കിട്ടാറില്ല ക്ലാസിക്കൽ ഡാൻസസ്സ് അത്രയും ആഗ്രഹവും ആ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പഠിച്ച് തീർക്കണം പഠിക്കണമെന്ന് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പഠിക്കാൻ കഴിയൂ നമ്മുടെ ഡെഡിക്കേഷൻ നമുക്ക് വേ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് പഠിച്ചിട്ടും കാര്യമുള്ളൂ അത് ഈ ഡാൻസും ക്ലാസിക്കൽ ഡാൻസ് മാത്രമല്ല ഏത് ഡാൻസാണെങ്കിലും ഇപ്പോൾ നമുക്ക് പഠിക്കണം നമ്മൾ പഠിക്കും നമ്മൾ അത് ചെയ്യും എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും അത് നമ്മൾ ചെ ചെയ്തേ ചെയ്യണം പിന്നെ വെസ്റ്റേൺ ഡാൻസസാണ് ഇപ്പോൾ കൂടുതലും എല്ലാവരും എല്ലാവടത്തും ഇങ്ങനെ കണ്ട് വരുന്നത് എല്ലാവരും ചേരാൻ ആഗ്രഹിക്കുന്നതും കൂടുതൽ വെസ്റ്റേൺ ഡാൻസസാണ് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തുറന്ന് തുറന്നിട്ടുണ്ട് പല പല സ്ഥലങ്ങളിലായി ഒരേ ഡാൻസസ് പഠിക്കാൻ വേണ്ടിയിട്ട് പല പല സ്ഥലങ്ങളിൽ തുറന്നിട്ടുണ്ട് ഇതൊക്കെ എന്താ പറയാ പലരും കുഞ്ഞു കുഞ്ഞി യുവാക്കൾന്ന് മാത്രമല്ല കുഞ്ഞ് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ പോയി പഠിക്കുന്നുണ്ട് പിന്നെ പ്രായമായവർക്ക് വേണ്ടി സൂമ്പ ക്ലാസസ്സ് അങ്ങനെ പല പല ഐറ്റംസുമായി പല പല ഡാൻസ് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ കൂടി എന്താ പറയാ കൂടുതൽ വെസ്റ്റേൺ ഡാൻസാണ് ഇപ്പം കൂടുതൽ കാണുന്നത്